സംസ്ഥാനത്തിൻ്റെ പുറത്ത് പോവാനായിട്ട് പോയത് മൈസൂർ ആയിരുന്നു അത് കോളേജിൻ്റെ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് ഒരു ഹോളിഡേ ട്രിപ്പ് പ്രമാണിച്ച് പോയതാണ് മൈസൂർ മൈസൂർ പാലസും സൂ മൈസൂർ സൂ അങ്ങനെ നിശ്ചിതമായ കുറച്ച് സ്ഥലങ്ങൾ കാണാനും ആസ്വദിക്കാനും പറ്റി അതുപോലെ മൈസൂർ പാക്ക് ടെയ്സ്റ്റ് ചെയ്യാനുള്ളൊരു ഒരു അവസരം ലഭിച്ചു അതിൽ കൂടുതലെങ്ങും സംസ്ഥാനത്തിന് പുറത്ത് പോയിട്ടില്ല അതേപോലെ രാജ്യത്തിന് പുറത്തും പോയിട്ടില്ല